ആ ഹലോ ഞാനേ പണിക്കിലെ ഇതാണ് ഗീത ആയിരുന്നേ നമ്മ ആ നമ്മളേ ഇന്ന് ആ ഞാൻ ഇന്നലെ ഒരു ഗ്യാസ് കുറ്റി എടുത്തിരുന്നു ഗ്യാസ് ആ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഇത്ര നാൾ അടുപ്പിലായിരുന്നു കത്തിച്ചുകൊണ്ട് ഇരുന്നതേ ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം ആ ആദ്യമായിട്ട് എടുക്കുവാണ് അന്നേരം ഇപ്പം അടുപ്പിലൊന്നും കത്തിക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടി ഓടുന്നില്ല അന്നേരത്തേക്ക് എടുത്തതാണേ എടുത്തിട്ട് ആ അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് അതിന്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് അവർ പറഞ്ഞ് എനിക്ക് അത് വെച്ച് നോക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ആദ്യം ആയതുകൊണ്ടേ നമുക്ക് ഇത് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല എന്നാ ചെയ്യേണ്ടത് എന്നൊള്ളത് ചിലർ പറയുന്നു ഇത് ഊരുമ്പം എല്ലാം പൊട്ടിത്തെറിക്കും എന്നൊക്കെ അന്നേരം ആ ഹാ ആ ആ ഹാ ആ ഹാ ആണല്ലേ ആ ഓഫ് ചെയ്തിട്ട് അപകടം ഒന്നും ഇല്ലല്ലോ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ ആണോ ആ ഹാ ആണോ ആ ആ ആ നമ്മുടെ അങ്ങനത്തെ ആണ് കുഴപ്പം ഒന്നും ഇല്ല അവിടെ വയ്ക്കാം കുഴപ്പം ഒന്നും ഇല്ല വെച്ചേക്കാം

ആ ഹാ വല്ല ലീക്ക് ആവുവോ വല്ലതും ചെയ്യുമോ അതോ എങ്ങനെ നമ്മൾ എങ്ങനെ അറിയും ലീക്ക് ആയി എന്ന് എങ്ങനെ അറിയും മണം വരുമോ വരും ആ ആ ഹാ ആ ഹാ ഷവർ ചെയ്താൽ മതി ആ ആ അപ്പോൾ എന്നാൽ വെച്ച് വെച്ചുനോക്കാം അല്ലേ അങ്ങനെ ആ ആ ശരി ആ ശരി വിളിക്കാം വിളിക്കാം ആ ശരി ഓക്കെ എന്നാൽ ആ